ഞങ്ങളുടെ ജില്ല ഇടുക്കി ജില്ലയാണ് ഞങ്ങൾ ജില്ലയിൽ ഇപ്പോൾ ഭരിക്കുന്നത് ജില്ല ഭരിക്കുന്നത് ഞങ്ങളുടെ റോഷി അഗസ്റ്റ്യനാണ് ഞങ്ങളുടെ എം പി ആണ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങ ൾക്ക് എല്ലാത്തിനും പിന്തുണയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല പ്രവർത്തനങ്ങളാണ് ഒന്ന് റോഡിൻ്റെ വികസനം ഭവന ഇല്ലാത്തവർകൊക്കെ ഒത്തിരി ഭവന രഹിതരെയൊക്കെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ എല്ലാ ആനുകൂല്യങ്ങളും ഇടക്കിടയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നുണ്ട് ജല വിഭവ വകുപ്പ് മന്ത്രിയാണ് പിന്നെ ഡീൻ കുര്യാക്കോസ് എം പി ആണ് അങ്ങനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും റോഡ് വികസനം ആണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ഉള്ളത് പിന്നെ എല്ലാവരെയും എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന ഒരു എം എൽ എ ആണ് ഞങ്ങൾക്ക് ഉള്ളത് ഇപ്പ രണ്ടാമത്തെ തവണയാണ് ഞങ്ങളുടെ മന്ത്രി ആയിട്ട് കിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ ഈ നമ്മുടെ ഭരണം ഭരണാധികാരിയായ നമ്മുടെ പിണറായി വിജയൻ സഖാവെങ്കിൽ ഏറ്റവും നല്ലെ ഒരു ഭരണമാണ് കാഴ്ച വയ്ക്കുന്നത് ഈ രണ്ടാമത്തെ തവണയും വിജയിച്ചു മൂന്നാമത്തെ തവണയും വിജയിക്കാൻ ഞങ്ങൾ എല്ലാവരും അതുപോലെ ആഗ്രഹത്തോടെ ഇരിക്കുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങളിലും പെൻഷൻ പെൻഷൻ ആനുകൂല്യങ്ങളും എല്ലാം ഒത്തിരി തരുന്നുണ്ട് നേരത്തെതിലും പെൻഷൻ കൂട്ടുകയും എല്ലാം തവണ മുടങ്ങാതെ തരുകയും അങ്ങനെയൊക്കെ ഒത്തിരി ആനുകൂല്യങ്ങളൊക്കെ തരുന്നുണ്ട് പിന്നെ എല്ലാ ത്തിലും തരത്തിലും ഞങ്ങളുടെ ജില്ല ഭരണം കാഴ്ച വയ്ക്കുന്ന ഒരു ജില്ലയാണ് ഞങ്ങൾക്ക് എല്ലാ ജനങ്ങൾക്കും അതിനോട് വളരെയധികം താൽപര്യം ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ